ഞാനും എന്റെ അച്ഛനും അമ്മയും ഏട്ടനും അടങ്ങുന്നൊരു നാല് പേരുകളടങ്ങുന്ന കുടുംബം ആയിരുന്നു അതിനുമുൻപ് അച്ഛച്ചൻ ഉണ്ടായിരുന്നു അച്ഛച്ചൻ മരിച്ചുപോയി അതു കഴിഞ്ഞ് ഇപ്പോഴൊരു മൂന്ന് വർഷമായി എന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു എന്റെ അമ്മ മരിച്ചു അതുകഴിഞ്ഞ് എന്റെ ഏട്ടൻ കല്ല്യാണം കഴിക്കലുണ്ടായി കല്ല്യാണം കഴിച്ച് ഇപ്പം ഏട്ടത്തി ഉണ്ട് ഏട്ടത്തി അവർക്കൊരു ഒരു മകനുണ്ട് പത്ത് മാസമായിട്ടുണ്ട് ഇപ്പോൾ എന്റെ അച്ഛൻ രണ്ടാമതൊരു കല്ല്യാണം കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പം രണ്ട് വർഷായി ഇപ്പോൾ അമ്മ മരിച്ചിട്ട് മൂന്ന് വർഷമായി ഉള്ളത് പിന്നെ എന്റെ സുഹൃത്തുക്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കോളേജിൽ ആയിക്കോട്ടെ സ്കൂളിൽ ആയിക്കോട്ടെ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട് അതെപോലെത്തന്നെ ഇപ്പോൾ ഞാൻ പഠിക്കുന്നിടത്തും അതെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുഹൃത്തുക്കൾ എന്താ പറയുക എന്താ പറയുക എന്റെ കുടുംബം പോലെതന്നെയാണ് എന്റെ സുഹൃത്തുക്കളും എന്നിക്കൊരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്